ആ ചേട്ടാ ചേട്ടാ ഞങ്ങൾ ഇവിടെ നിന്ന് കോഴിക്കോടു നിന്ന് വരികയാണ് അപ്പോൾ എന്താ അവിടെയുള്ളത് നെന്മാറയിൽ വല്ലങ്ങി വേല കാണാൻ വേണ്ടി വന്നതാണ് അതിനെപ്പറ്റിയൊന്ന് പറഞ്ഞു തരുമോ

എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആദ്യം എങ്ങനെയാണ് ചടങ്ങ് തുടങ്ങുന്നത് ആദ്യത്തെ ചടങ്ങെന്താണ് ശരിക്കും ഈ വേലയുടെ

ഒരുപാട് ആനകളൊക്കെ ഉണ്ടാകാറുണ്ടോ ആനകൾ ഒരുപാട് ഉണ്ടാകാറുണ്ടോ ഏകദേശം എത്ര ഏകദേശം എത്ര ആനകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടുത്തെ വെടികെട്ടിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ എത്ര മണിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക

അപ്പോൾ എങ്ങനെയാണ് രാത്രിയിലത്തെ കാണാനാണോ രാവിലത്തെ കാണാനാണോ ആൾക്കാർ കൂടുക